ചാസില് എത്രനാളായി വർക്ക്യ്യാൻ തുടങ്ങിയിട്ട് എക്സ്പീരിയൻസൊന്ന് ഷെയറ്യ്യാവോ ചാസിൽ വർക്ക്യ്യാൻ തുടങ്ങിയിട്ടിപ്പോള് പന്ത്രണ്ട് വർഷമായി ചാസില് പ്രൊജക്റ്റ് കോഓർഡനാറായിട്ട് ജോയിൻ ചെയ്തു അന്ന് തൊട്ട് ഇവിടെ പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക്യ്യാണ് ഈ സോഷ്യൽ വർക്കിലോട്ട് വന്ന കാരണം ഒത്തിരി പോസിറ്റീവ് എനർജി കിട്ടിയ പോലാണ് നമ്മുടെ പ പാവപ്പെട്ട മനുഷ്യര് മീഡിയം ലെവലിലുള്ളവര് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമ്മള്ക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അവരായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംസാരിച്ച് അവരോട് സംസാരിക്കുമ്പോള് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രോള്ളെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും നമ്മുടെ വീടുകളൊക്കെ സ്വർഗ്ഗമാണെന്ന് വിചാരിക്കും പിന്നെ ഡിഫറെൻറ്റ്ലി ഏബിൾഡായിട്ടുള്ളാൾക്കാര് അവരുടെയൊക്കെ വീടുകളിൽ പോയി കാണുമ്പോള് ദൈവം സത്യമായിട്ടവർക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ഉള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത രീതിയിലുള്ള വീടുകളാണ് മിക്ക വീടുകളും കുട്ടനാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാല് വെള്ളത്തിനകത്ത് അതുങ്ങള്ക്ക് നടക്കാൻ പറ്റത്തില്ല അവരീ നിരങ്ങി ജീവിക്കുന്ന ആൾക്കാര് അവരിപ്പോള് വെള്ളമൊക്കെ പൊങ്ങുന്ന സമയത്തവര് ക കട്ടിലൊക്കെ പൊക്കിവച്ചാല് ആ പിള്ളേരെ സൂക്ഷിക്കുന്നതൊക്കെ കണ്ടുകഴിയുമ്പോള് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും പിന്നെ അതുങ്ങള് വളർത്ത് സ് ജീവിത സാഹചര്യങ്ങള് അവരുടെ ഈ ബുദ്ധിമുട്ടില് ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ എന്തേലുമൊക്കെ അസുഖങ്ങളായിട്ട് അമ്മയ്ക്കസുഖം അപ്പനസുഖം സഹോദരങ്ങൾക്കസുഖം പഠിച്ച് നന്നായിട്ട് പഠിച്ച ആൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഈ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം അപ്പോഴൊക്കെ നമുക്ക് ദൈവം നമുക്ക് തരുന്ന നൻമയുടെ ഒരു വശം നമ്മുടെ നമ്മള്ക്ക് ഇങ്ങനത്തെയൊന്നും സംഭവിച്ചില്ലല്ലോ ഇവരൊക്കെ എന്നാലും ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും കൊടുക്കുന്നത് തന്നെ ഞാനെപ്പോഴും ഇത് ചിന്തിക്കാറുണ്ട് എന്താണ് അവർക്കങ്ങനെ കൊടുത്തതെന്ന് അവർക്ക് അങ്ങനെ കൊടുത്തതിനെന്തേലും ദൈവത്തിൻ്റെ പദ്ധ്തിയുണ്ടോ ദൈവിക പദ്ധതിയാണല്ലോ എല്ലാം നടക്കുന്നെ പിന്നെ ഞാനിവിടെ ഓഫീസിലിരിക്കുമ്പോള് അങ്ങനെ ഒത്തിരി പേര് നമ്മളിവിടെ വന്ന് കാണാറുണ്ട് എല്ലാവരും പല തര രീതിയില് ശാരീരികവും മാനസികവും ബുദ്ധിമുട്ടുകളിലൂടെ വരുന്ന ആള്ക്കാര് അവരേക്കെ പുറമെ കണ്ട് കഴിയുമ്പോള് വളരെ മനോഹരമായിരിക്കുമെങ്കിലും അവരോട് പേഴ്സണലി സംസാരിച്ച് വരുമ്പോഴത്തേനും നമുക്കറിയാം അവരുടെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് നമ്മള്ക്ക് എത്തപ്പെടാൻ സാധിക്കും അപ്പോള് അങ്ങനെ ഈ സോഷ്യൽ വർക്ക് സെക്ഷ സെക്റട്ടറിലായ കാരണമാണ് ഞങ്ങള്ക്ക് എനിക്കിങ്ങനെ പല തരത്തിലുള്ളാൾക്കാരെ കാണാൻ പറ്റിയത് അവരുമായിട്ടിടപഴകാൻ പറ്റിയത് നമ്മുടെ വീട്ടില് നമ്മുടെ വീട് സ്വർഗ്ഗ തുല്യമായി ജീവിക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് നമ്മുടെ പോരായ്മകൾ മാത്രം ഇപ്പോള് ഇങ്ങനെ വർക്ക്യ്യാൻ തുടങ്ങിയേ പിന്നെ പിന്നെ നമ്മള്ക്കുള്ള പോരായ്മകള് എനിക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാനിവർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സമർപ്പിക്കും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നല്ല നിലയില് പോകുന്നു എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മളെത്തി ചേർക്കാൻ സാധിക്കും പിന്നെ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മളെപ്പോഴും അപ്പ്ഡേറ്റഡായിരിക്കും നമ്മലളെപ്പോഴും അപ്പ്ഡേറ്റാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഫീസ് സംവിധാനത്തിന് യോജിച്ച രീതിയില് അപ്പ്ഡേറ്റ്യ്തോണ്ടിരിക്കേണ്ടതായിട്ട് വരും കമ്പ്യൂട്ടർ ബേസ്ഡാണേലും സോഷ്യൽ മീഡിയ വഴി ആയിട്ടുള്ളതാണേലും എല്ലാത്തിനകത്തും നമ്മളൊരു അപ്പ്ഡേറ്റഡാണ് നമ്മള്ക്കീ പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ആരാ പൊറക് പുറത്ത് പുറകോട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയില് നമ്മള് ഈ ഒരു വർക്ക് സോഷ്യൽ വർക്കിലൂടെ നമുക്ക് ഉയരുവാൻ സാധിച്ചു എന്നുള്ളതാണ് വേറൊരു ഗുണമെന്ന് പറയുന്നെ പിന്നെ നമുക്ക് സാമ്പത്തികം സാമ്പത്തികപരമായിട്ട് നമുക്ക് കുറച്ചു സാലറി ഉള്ളെങ്കിലും സാമ്പത്തികപരമായിട്ട് നമുക്കത് നമ്മളെ സപ്പോർട്ടെയ്യുന്നുണ്ട് ആ ഒരു ചെറിയ തുകയില് നമ്മുടെ ജി വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതല്ല ഏത് വിധത്തേലും ഒരു ജോലി ഉള്ളതുകാരണം ഇപ്പോള് ഞാനിപ്പോള് വീട്ടില് ഇരിക്കുകയായിരുന്നീ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ വീട്ടില് ഇരിക്കുകയായിരുന്നേ എനിക്കൊരു വരുമാനവും ഇല്ല ഒരപ്പ്ഡേഷൻ നടക്കത്തില്ല പല ആൾക്കാരെ കാണാൻ സാധിക്കുന്നു ഞാന് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങള് മാത്രമാലോച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നെ പലരും കാണുന്നത് കാരണം നമ്മുടെ വീട്ടിലുള്ള കാ വീട്ടിലുള്ള പ്രശ്നങ്ങള് ഒന്നും ഒരു പ്രശ്നമായിട്ട് ഞാൻ ചിന്തിക്കാറുപോലുമില്ല അതനുസരിച്ച് ഇത് ഇവിട വന്നൊക്കെ ആരുടേം മുന്നിൽ കാണിക്കാറൂം ഇല്ല